ഹലോ ഹലോ മലബാർ ബേക്സ് അ ഒക്കെ ഞാന് മറ്റേ ഇപ്പോൾ ഉള്ളത് എന്താണ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ഫോറെസ്റ് ഉണ്ട് വൈറ്റ് ഫോറെസ്റ് ഉണ്ട് പിന്നെ ബബിൾ കേക്ക് ഉണ്ട് റെഡ് വെൽവെറ്റ് ഉണ്ട് പിന്നെ റെഡ് വെൽവെറ്റിന് മുന്നൂറ്റി അമ്പത് പിന്നെ ബബിൾ കേക്കിന് അരക്കിലോയ്ക്ക് അഞ്ഞൂറ് കെട്ടോ മറ്റതിന് അര കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് പിന്നെ ബ്ലാക്ക് ഫോറെസ്റ് ആണെങ്കിൽ മുന്നൂറ് വൈറ്റ് ഫോറെസ്റ്റിന് മുന്നൂറ് പിന്നെ ആ നട്സിന്റെ കേക്ക് ഉണ്ട് അതായത് നമ്മൾ കശുവണ്ടി ഒക്കെ ഇട്ടിട്ടുള്ള കേക്ക് ഉണ്ട് അതിൻ്റെ ഒക്കെ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും എല്ലാം വേറെ വേറെ ഫ്ളെവർ ആണല്ലോ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഫോറെസ്റ്റിന് കുഴപ്പം ഇല്ലാത്തൊരു ടേസ്റ്റ് ആണ് വൈറ്റിനും വലിയ കുഴപ്പമില്ല പിന്നെ എല്ലാത്തിനും ഒരു വേറെ വേറെ ടേസ്റ്റ് ആണ് ഉള്ളത് അ കുറച്ചും കൂടെ സ്പഞ്ച് കുറച്ചും കൂടെ നല്ലത് ബ്ലാക്ക് ഫോറെസ്റ്റിന്റെ ആയിരിക്കും മറ്റേതിന് സ്പഞ്ച് വേറൊരു ടൈപ്പ് ആയിരിക്കും ഈ ബബിൾ കേക്ക് പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു ടൈപ്പാണ് അതായത് പിന്നെ വാൻചോ ഉണ്ട് വാൻചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാക്ക് ഫോറെസ്റ്റും വൈറ്റ് ഫോറെസ്റ്റും കൂടെ രണ്ടുംകൂടെ മിക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ആണ് വൈറ്റ് ഫോറസ്റ്റാണോ അ അതിന് എത്ര കെജിൻ്റെ ആണ് വേണ്ടത് ഒരു കിലോന്റെയ ഒരു കിലോയ്ക്ക് മുന്നൂറ് അറുന്നൂറു രൂപ വരും കെട്ടോ എന്തെങ്കിലും എഴുതണോ ആർക്കാണ് ബർത്ഡേ അങ്ങനെ എന്തേലും എഴുതണോ

അ ഫസ്റ്റ് ആനിവേഴ്സറി അത് എഴുതാം അല്ലേ പിന്നെ വേറെന്തെങ്കിലും ഐറ്റംസ് എന്തെങ്കിലും വേണോ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും കേക്ക് മാത്രം മതി പിന്നെ അതിൻ്റെ കൂടെ വേറൊരു മറ്റേ നമ്മൾ ഈ പൊട്ടിക്കുന്ന ഒരു സൈസ് സാധനം ഇല്ലേ അതൊക്കെ ഉണ്ട് അങ്ങനെ എന്തേലും ഒക്കെ വേണോ വേണ്ട അല്ലെ അത് മതി എപ്പഴാണ് വരിക ഇന്ന് വൈകിട്ടാണോ എത്ര മണിക്ക് ഇല്ലെങ്കിൽ ഞങ്ങള് ഹോം ഡെലിവറി ചെയ്യാനുണ്ട് ഹോം ഡെലിവറി വേണമെങ്കിൽ ഹോം ഡെലിവറി ചെയ്യാം ഇന്ന് വൈകിട്ടേക്കാണോ അ ഓക്കെ ഓക്കെ ഓക്കെ ഷോപ് ഓപ്പൺ ആണ് ഓക്കെ ഓക്കെ ശരി